ആ ഇത് ക്യാബ് ഡ്രൈവര് അല്ലേ ആ ഓകെ ഓകെ എനിക്കൊന്നു തൃശൂർ വരെ പോകണമായിരുന്നു ആ എന്റെ അമ്മ അവിടെയുണ്ട് അപ്പോൾ അമ്മേനെ ഒന്നിങ്ങോട്ടേക്ക് കൂട്ടാന് വേണ്ടീട്ടാ ആ ഓകെ ഓകെ അല്ല അവിടം വരെ പോകുമ്പോൾ നമ്മൾക്കെത്ര രൂപ വരും ആറായിരം രൂപ അല്ലേ ഓകെ മറ്റേന്നാൾ ആണ് എനിക്ക് പോകേണ്ടത് അമ്മ രണ്ടുമൂന്നു ദിവസമായി പോയിട്ട് അപ്പം മറ്റന്നാൾ വരാമെന്നാണ് പറഞ്ഞത് ആ ഓകെ ഓകെ

ആ ആ നമ്മൾക്ക് ഇവിടുന്നു അങ്ങോട്ടേക്ക് പോയാൽ മതി

ആ തൃശൂർ വരെ പോയിട്ട് നമ്മൾ അവിടുന്ന് കൂട്ടുന്നു എന്നിട്ട് തിരിച്ചു വരുന്നു അത്രേയുള്ളൂ വേറെ കാര്യങ്ങള് ഒന്നും ഇല്ല അപ്പോൾ ഞാനുമുണ്ടാവും എന്റെ ഒരു ഫ്രണ്ടും ഉണ്ടാവും എന്റെ കൂടെ വേറെ ആരും ഇല്ല നമുക്ക് അവിടുന്ന് കൂട്ടീട്ടു വരുന്ന മാത്രമേ ഉള്ളൂ വേറെ ഇപ്പം നമുക്ക് അവിടെ എവിടേയും കാണാനോ അങ്ങനത്തെ ഒന്നും ഇല്ല ജസ്റ്റ് കൂട്ടീട്ട് വരുക അത്രയേ ഉള്ളൂ

ആ ഓകെ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ എട്ടുമണിയാവുമ്പോൾ എത്തിയാൽ മതി ഓകെ എന്നാൽ